എലി പാറ്റ തുടങ്ങിയവയുടെ ശല്യം ഒഴിവാക്കാൻ ഞങ്ങൾ ഹിറ്റടിക്കാറുണ്ട് പിന്നെ ഡെറ്റോളൊഴിച്ചാണ് വീടും പരിസര വീടൊക്കെ വൃത്തിയാക്കുന്നത് പിന്നെ അതിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് തേങ്ങാ മുറി അരിക്കകത്ത് കയറും വീടി വീടിൻ്റെ എല്ലാ വശങ്ങളിലും കൂടി പല്ലിയെപ്പോഴും ശല്യമായിട്ട് നടക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് അതിനെ ഒഴിവാക്കാൻ അതിന് ഞങ്ങൾ കൂടെ കൂടെ വീട് വൃത്തിയാക്കാറുണ്ട് എലിക്കെണി വെക്കാറുണ്ട് പാറ്റയാണ് പാറ്റ എന്ത് വെച്ചാലും അതിനകത്ത് കയറി കറണ്ട് തിന്നും കടലാസായാലും ഒരു പുസ്തകമാണെങ്കിലും അരിക്കകത്ത് തൊട്ട് സകല കാര്യങ്ങളും ഈ ചീത്തയാക്കുന്ന ജോലിയാണ് പാറ്റയുടേത് പിന്നെ പല്ലിയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ആഹാര സാധനങ്ങൾ പോലും തുറന്ന് വെക്കാൻ പറ്റത്തില്ല പല്ലി പല്ലി അതിനകത്ത് ചാടും പിന്നെ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല